പാലക്കാടിലെ കാലാവസ്ഥനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ ഋതുക്കളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ സമയത്തും ഒരു പോലെയായിരിക്കണമെന്നില്ല വേനൽക്കാലം ഒക്കെയെന്ന് വേനൽക്കാലം എന്നു പറയുന്ന സമയത്ത് എന്താണ് ഈ മാർച്ച് ഏപ്രിൽ മേയ് ആ സമയങ്ങളിലായിരിക്കും വേനൽക്കാലം ഫെബ്രുവരിയുടെ പകുതിയോടെ തന്നെ എന്ത് വേനൽക്കാലം തൊടങ്ങും വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന അവസ്ഥയായിരിക്കും അപ്പം ആ വേനൽക്കാലത്ത് നിന്ന് ഒരു മോചനം എന്ന രീതിയിലായിരിക്കും മഴക്കാലം വരിക മഴക്കാലം എന്നു പറയുമ്പോൾ ഒരു ജൂണിലൊക്കെയാണ് ശരിക്കും ജൂണിൽ മഴക്കാലം തുടങ്ങണതാണ് പക്ഷേ ജൂണിലൊന്നും മഴയെ കിട്ടാറില്ല ഒരു ജൂൺ ജൂലൈ ജൂലൈ ഒക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ശരിക്കും ഒന്ന് പെയ്തു തുടങ്ങുക അതും കുറച്ച് സെപ്റ്റംബറിലൊക്കെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ചെ കിട്ടുകയുള്ളൂ ആദ്യത്തെ രണ്ട് മൂന്നു വർഷം മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ മഴക്കാലം എന്നു പറയുമ്പോൾ ഒരു അത്രത്തോളം വേനൽക്കാലം ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് മറ്റേ ഏപ്രിൽ മെയ്യൊക്കെ ആകുമ്പോൾത്തന്നെ നല്ല മഴ പെയ്യും മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരവസ്ഥ ഭയങ്കര ദുരിതമായിരുന്നു വീട്ടിലും നാട്ടിലും എല്ലാവിടേയും വെള്ളം നിറഞ്ഞിട്ട് ഇരിക്കണ അവസ്ഥ അപ്പോൾ ഒന്നു കൂടുകയും ചെയ്യും മറ്റൊന്ന് കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പിന്നെ തണുപ്പ് കാലം എന്നുണ്ടെങ്കിൽ ആ നല്ല തണുപ്പും വേനൽക്കാലത്ത് നല്ല തണുപ്പു കിട്ടുന്ന ഒരവസ്ഥ അതൊക്കെ ഉണ്ടാവാറുണ്ട്